ഹലോ ഡെൽബിനയല്ലേ ആഹ് ഇന്നുതൊട്ടു പുതിയ ജോലിയില് പ്രവേശിച്ചു അല്ലേ ആ ആഹ് ഒത്തിരി ഒത്തിരി താമസിക്കല്ലേ കേട്ടോ എന്താണെന്ന് ചോദിച്ചാല് ഒത്തിരി പണികളുണ്ട് ആ നമുക്ക് പൂന്തോട്ടം നനയ്ക്കുകയുമൊക്കെ ചെയ്യണം പിന്നെ പിള്ളാരുമായിട്ട് കളിച്ച് പിള്ളാരെ സന്തോഷിപ്പിക്കണം പിള്ളാരുടെ കൂടെ എപ്പോഴും കാണണം പിള്ളാരുടെ കൂടെയിരിക്കുക ആ അതെ അതെ ആ രാത്രിയില് ഫുൾ സമയമാണ് കേട്ടോ ആ രാവിലെ വിട്ടേക്കാം ആ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് ജാനി ഉണ്ടാക്കുന്നത് ഉണ്ടാക്കിയിട്ട് പിള്ളാർക്കും കൊടുത്ത് കഴിക്കണം എനിക്കു വരാൻ പറ്റില്ല ഞാൻ ജോലിസ്ഥലത്തായിരിക്കും വീട്ടില് രണ്ടുപേര് രണ്ടു പിള്ളാരും അപ്പച്ചനും അമ്മച്ചിയും അങ്ങനെ നാല് പേര് ആ നോക്കണം ആ കിടപ്പല്ല എല്ലാം അപ്പച്ചനും അമ്മച്ചിയുമൊക്കെ അവരുടെ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യും അപ്പോള് അവരെയൊക്കെ ശ്രദ്ധിക്കണം അവരുടെ ആ ആ ഡെൽബിയ എപ്പോഴും അവരുടെ കൂടെ എപ്പോഴുമൊരു കൂട്ടായിട്ടു കാണണം അവരുടെ ഭക്ഷണവും കാര്യങ്ങളുമെല്ലാം പഠിക്കുന്ന പിള്ളാരല്ല ചെറിയ കുട്ടികളാണ് ആ ചെറിയ കുട്ടികളാണ് ആ അതെ കുളിപ്പിക്കണം അവരുടെ ഡ്രസ്സ് മാറ്റണം പിന്നെ അവർക്ക് അവർക്ക് സമയാസമയങ്ങളിൽ ഭക്ഷണം കൊടുക്കണം വെള്ളം കൊടുക്കണം അങ്ങനെയുള്ള ആ കഴിക്കാനൊരിത്തിരി മടിയുള്ള പിള്ളാരാണ് അവരെ ഇത്തിരി സന്തോഷിപ്പിച്ച് കഴിപ്പിക്കണം ആ ആ ടീ വി ഒക്കെ വെച്ച് ടീ വിയുടെ അടുത്ത് എപ്പോഴും ടീ വി ഉപയോഗിക്കാനും പാടില്ല ശമ്പളം ഇരുപത്തിയയ്യായിരം രൂപയാണ് ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നത് ആഹ് ആഹ് തരും തരും തരും തരും അതൊക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കില് പറഞ്ഞാല് മതി ആവശ്യങ്ങളുണ്ടെങ്കിൽ എന്താണെന്നുവെച്ചാല് ചെറിയ സഹായങ്ങളൊക്കെ ചെയ്യാം ആഹ് ദിൽബയുടെ വീട്ടിൽ ആരൊക്കെയാണുള്ളത് ആഹ് അതെയല്ലേ അപ്പോള് പതിനഞ്ചു ദിവസം കൂടുമ്പോള് പതിനഞ്ചു ദിവസം കൂടുമ്പോള് വീട്ടില് പോകാം പതിനഞ്ചു ദിവസം കൂടുമ്പോള് പോകാം ഹെ ഒരു മാസം രണ്ട് ദിവസത്തെ അവധിയുണ്ട് ആഹ് പതിനഞ്ച് ഇത് ഇടുക്കി ജില്ലയിലെ തോപ്രാംകുടി ആ അതെ അതെ കട്ടപ്പനയാണല്ലെ ആ എത്ര വരെയും പഠിച്ചു ആ പിള്ളാരുടെ കാര്യങ്ങളൊക്കെ വളരെ അധികം ശ്രദ്ധിക്കണം പിള്ളാർക്കൊരു ബുദ്ധിമുട്ടും വരരുത് അതിപ്പം പിന്നെ അപ്പച്ചനും അമ്മച്ചിക്കും ഒരു കുഴപ്പവും വരരുത് ഞാൻ

ആ ഇടയ്ക്കിടയ്ക്ക് ഷോപ്പിംഗിനു പോകണ്ടതായിട്ടൊക്കെ വരും ഇപ്പം ബാക്കിയുള്ള സാധനങ്ങള് അന്നേ ഇല്ലില്ല അന്നേരം വേറെ ആളുണ്ട് അപ്പോള് ആള് വരും എൻ്റെ കസിനൊക്കെ വരുമ്പോള് അവരുടെ അടുത്ത് ആ ചെടികളൊക്കെയുണ്ട് നനയ്ക്കാൻ അത് ഈ പിള്ളാര് ഉറങ്ങുന്ന സമയത്തൊക്കെ പിന്നെ വേറെയെന്താണ് ആ ആ അതെ അതെ അങ്ങനെ ചെയ്താല് മതി അഡ്ജസ്റ്റ് ചെയ്ത് കൊച്ചുങ്ങള്ക്കും അപ്പച്ചനും അമ്മച്ചിക്കും ആ ഒരു പരിധിയുണ്ട് എപ്പോഴും ഫോണില് തന്നെ ഇരുന്നാല് പിള്ളാരങ്ങോട്ടും അപ്പച്ചനങ്ങോട്ടുമൊക്കെ അമ്മച്ചിയെങ്ങോട്ടുമൊക്കെയായി ഇത്തിരി ബുദ്ധിമുട്ട് ആ ആവശ്യത്തിനു മാത്രം വിളിക്കാം അല്ലാതെ അനാവശ്യമായിട്ട് ഫോൺ ആ കിടക്കുന്ന സമയമുണ്ട് കിടക്കുന്ന സമയമൊരു പതിനൊന്നു മണിക്കുള്ളില് കിടക്കാം പത്തിന്റെയും പതിനൊന്നു മണിയുടെയും ഉള്ളില് കിടക്കാം രാവിലെ ഒരു അഞ്ചരയൊക്കെയാകുമ്പോത്തേക്ക് എഴുന്നേല്ക്കണം

ആ പിന്നെ ഞാനും എനിക്ക് പറ്റുന്നതുപോലെയൊക്കെ ഞാനും സഹായിച്ചിട്ടേ പോകുകയുള്ളൂ മ് ഞാനും എൻ്റെ ഞാന് വീട്ടിലുണ്ട് ഞാന് രാവിലെയെ ഞാൻ ഡ്യൂട്ടിക്ക് പോകുകയുള്ളൂ അപ്പം എനിക്ക് പറ്റുന്ന ജോലികളൊക്കെ ഞാൻ ചെയ്യും

മ്മ് ആ അപ്പം അതിനോട് ഇടയ്ക്കുള്ള സമയത്തൊക്കെ ആ ഞാനും സപ്പോർട്ട് ആണ് ആ ശമ്പളം കുറവാണോ ഇരുപത്തിയയ്യായിരം രൂപയില്ലേ പിന്നേ ഇടയ്ക്കൊക്കെ ഇടയ്ക്കൊക്കെ ആ പ്രാരാബ്ദങ്ങളൊക്കെ വരുമ്പോള് ഇടയ്ക്കൊക്കെ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുവല്ലോ ആശുപത്രി കേസോ ഇല്ലില്ല ആ ഇത് വാക്കാലല്ല ഇത് പ്രവർത്തിയാൽ നമ്മള് കാണിക്കുന്ന കാര്യമാണ് ഇപ്പോളൊരു തുക ഇത് ഇങ്ങനെ ആ ഉറപ്പാണ് ഉറപ്പാണ് അതനസരിച്ച് തുക ഇപ്പം ഇങ്ങനെ പറഞ്ഞെന്നെയുള്ളൂ എന്നാലും നിങ്ങളുടെ ഒരു ആവശ്യമോ സഹായമോ കാര്യങ്ങളോ വരുമ്പോള് നമ്മള് ഉറപ്പായിട്ടും നിങ്ങളെ സഹായിച്ചിരിക്കും ആ ഓണത്തിനും എല്ലാ വിശേഷ ദിവസവും ഡ്രെസ്സുണ്ട് ഞങ്ങള് ഷോപ്പിങ്ങിനു പോകുമ്പോൾ നിങ്ങളെയും പുറത്തു കൊണ്ടുപോകും നിങ്ങളുടെ കാര്യങ്ങള് നടത്തും നിങ്ങള്ക്ക് അത്യാവശ്യമുള്ള വീട്ടിലേക്ക് നിങ്ങള് പോകുമ്പോള് വീട്ടിലേക്കുള്ള സാധനങ്ങള് വാങ്ങിച്ചുതരും ഇതൊക്കെ തരുമ്പോള് ഇത്രയും സാലറി തന്നാല് പോരേ മ്മ് തരും തരും അന്നേരം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടുമായിരുന്നോ ആ അത് ഇടയ്ക്കല്ലെയുള്ളൂ ഇതിപ്പം ഞങ്ങള് പോകുമ്പോള് ഷോപ്പിങ്ങിനു പോകുമ്പോള് നിങ്ങളെയും കൂടെ കൂടെകൊണ്ടുപോകും നിങ്ങളെയും കൂടെ കൊണ്ടുപോയാണ് ഞങ്ങള് പോകുന്നത് നമ്മള് ഒന്നിച്ചു ചെയ്യുന്നു പിന്നെ നോക്കാം ഞാൻ എൻ്റെ ഹസ്ബൻഡുമായിട്ടൊന്ന് സംസാരിച്ചുനോക്കട്ടെ സാലറിയുടെ കാര്യം ആ നോക്കാം മ്മ് ആ നോക്കാം നമുക്ക് നോക്കാം ഒരു ഇത് ആ ഇപ്പോള് ഇത് സംഘടിപ്പിക്കാമോയെന്ന് നോക്കട്ടെ ഞാനൊന്ന് സംസാരിച്ചുനോക്കട്ടെ ആ നോക്കാം ആ അപ്പോള് അത് നമുക്ക് നോക്കാം ആ ഇത് ഞങ്ങളിങ്ങനെ ജോലിക്കാരെ വെയ്ക്കുന്ന കാര്യം ഓർത്തില്ലായിരുന്നു അതെന്താണെന്നുവെച്ചാല് ഞങ്ങള് തന്നെ കാര്യങ്ങള് നടത്തുമായിരുന്നു ഇതിപ്പം അപ്പച്ചനും അമ്മച്ചിക്കും ഇത്തിരി മേലാഴികയൊക്കെ ആയതുകൊണ്ട് ഒരു കൂട്ടും കാര്യങ്ങളും വേണം അതുകൊണ്ടാണ് അല്ലാതെ ഒരു ജോലിക്കാരിയായിട്ടല്ല അവിടെ നില്ക്കുന്നത് അത് ഓർക്കുകയും വേണ്ട ഇല്ല കിടപ്പിലായിക്കഴിയുമ്പോള് നമുക്ക് വേറെയുള്ള മാർഗ്ഗം നോക്കാമല്ലോ അങ്ങനെ ആവുകയില്ല അതെന്താണെന്നുവെച്ചാല് അവരിപ്പം നല്ല ആരോഗ്യത്തോടുകൂടി നടക്കുന്നവരാണ് ഇത്തിരി ഷുഗറും പ്രഷറുമൊക്കെ ഉണ്ടെന്നേയുള്ളൂ ആ ആ ആ ആ ഇത്തിരി എന്താണ് ഇല്ലില്ലല്ലല്ല എന്തു കാര്യമായാലും നമ്മള് സംസാരിച്ചു വേണ്ടേ കാര്യങ്ങള് നടത്താൻ അല്ലാതെ നമ്മള് സംസാരിക്കാതെയിരുന്നിട്ട് ലാസ്റ്റ് അത് ഇടയ്ക്കുവെച്ചു പറയേണ്ട കാര്യമില്ലല്ലോ പറയേണ്ടതെല്ലാം പറഞ്ഞു വേണം ഞാൻ നെഴ്സാണ് അങ്ങനെ ഇപ്പം എളുപ്പം വന്നു കഴിയുമ്പോൾ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് നോക്കാം നമുക്കിപ്പം ഇവിടെ നില്ക്ക് ഇവിടെ വേറെ കുഴപ്പങ്ങളൊന്നും വരികയില്ല അതുറപ്പാണ് വന്നപ്പം തന്നെ ഇഷ്ടപ്പെട്ടോ എല്ലായിടവും ആ അത് വേണം അത് നിങ്ങള്ക്ക് നിങ്ങളുടേതായ ഒരു കഴിവും ചൊണയുമുണ്ടെങ്കിൽ ആരും നിങ്ങളുടെ അടുത്ത് അടുക്കുകയില്ല നിങ്ങള്ക്ക് നിങ്ങളുടേതായ നിങ്ങളെ നോക്കാനുള്ളൊരു പ്രാപ്തി നിങ്ങള്ക്കുണ്ടെങ്കിൽ ആരും നിങ്ങളെ ഇല്ലില്ല സി സി ടീ വിയും കാര്യങ്ങളുമെല്ലാമുണ്ട് നമ്മുടെ വീട്ടില് അങ്ങനെയുള്ള ആ സി സി ടീ വിയും കാര്യങ്ങളുമൊക്കെയുണ്ട് പുറത്തുനിന്നുള്ളവരൊന്നുമില്ല എൻ്റെ ഹസ്ബൻഡ് ആറു മാസം കൂടുമ്പോഴേ വീട്ടില് വരികയുള്ളൂ മ്മ് ആ ഓക്കെ ഒക്കെ ഇടയ്ക്ക് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ അർജൻറ്റായിട്ട് ഞങ്ങള്ക്കൊന്ന് പോകേണ്ടിയൊക്കെ വരുന്നുവെങ്കില് അന്നേരം വീട്ടിൽ ആളു വേണമല്ലോ ആ ആ ആ ഓക്കെ മൂന്നുനാല് മാസം നിന്നിട്ട് നോക്ക് എന്നിട്ട് ഇത് പിന്നെ ഒരു കാര്യമാണ് നിന്നുകഴിയുമ്പോള് പിന്നെ നിങ്ങള്ക്ക് പോകാൻ തോന്നുകയില്ല എന്താണെന്നുവെച്ചാല് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മൂന്നുനാല് മാസം നിന്നുനോക്കിയിട്ട് വേറെ നിങ്ങളുടെ വീട്ടില് ചെറിയ ചെറിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ വരുമ്പോള് ഞങ്ങള് പറ്റുന്ന